കോഴിക്കോട് ജില്ലയിലെ പ്രധാന പ്രകൃതി ഇനങ്ങളിൽ വിഭവങ്ങളിൽ ജലം വനങ്ങൾ ധാതുക്കൾ മലിനീ ജലം വനങ്ങൾ ധാതുക്കൾ എന്നിവ വളരെ പങ്കുവഹിക്കുന്നുണ്ട് ജില്ലയിലെ ജലസ്രോതസുകൾ ഏതൊക്കെയാന്ന് വച്ചാൽ പുഴക്കര തമ്പാറുണ്ട് പിന്നെ കടല് കോഴിക്കോട് ബീച്ചുണ്ട് അങ്ങനെ അങ്ങനെ മറ്റ് പല ജലസ്രോതസ്സുകളും ഉണ്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ള ശുചിത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കോഴിക്കോട് ബീച്ചിലൊക്കെ ആവട്ടെ എപ്പോഴും മലിനീകരണം തുടർന്നുകൊണ്ടിരിക്കുന്നു എത്തരത്തിലാണെന്ന് പറഞ്ഞിട്ടും മലിനീകരണമുണ്ട് എന്നാലും ചിലയിടങ്ങളിൽ ഇല്ല അങ്ങനെ എല്ലാം ശക്തമായ അറിയിപ്പുള്ളതുകൊണ്ടു തന്നെ മലിനീകരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോഴും തുടർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് പലരുടെയും അശ്രദ്ധ മൂലം ജലസ്രോതസ്സുകളും എല്ലാം മലിനീകരണം നേരിടേണ്ടി വരുന്നുണ്ട് പിന്നെ മുൻസിപ്പാലിറ്റി സ്ഥിരമായി വൃത്തിയാക്കുന്നുണ്ട് നാട് നാട്ടിലൊക്കെ വന്നിട്ട് മുൻസിപ്പാലിറ്റി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നവും ഇല്ല സാ കൃത്യമായി വന്ന് നാട്ടിലൊക്കെ എല്ലായിടത്തും ചവറ്റ് കൊട്ടകൾ വയ്ക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടി ചവറ്റ് കൊട്ടകൾ വച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായി വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതിലൊന്നും കൊഴ് കുഴപ്പമില്ല